ഞങ്ങള് ഞാൻ നില്ക്കുന്നതിപ്പോള് ഒരു ഗ്രാമത്തിലാണ് ഉൾഗ്രാമത്തിലാണ് ശരിക്ക് പറഞ്ഞാല് പട്ടണങ്ങള് കുറവാണിവിടെ ടൂറിസം ഇപ്പോള് കുറവാണ് ഗവൺമെൻറ്റത് ശക്തമായി മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് കാരണം നല്ലൊരു മല പ്രദേശമാണിത് കേരളത്തിലെ കേരളത്തിൽ നിന്ന് കാര്യമായിട്ട് ടൂറിസ്റ്റ് കൺട്രി അല്ല ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആണ് പക്ഷെ കൂടുതലായി ഇപ്പോള് പഴയ പോലെ ആളുകളിങ്ങോട്ട് പുറത്തുള്ളവര് വരുന്നില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് തന്നെയാണിതിന് ഇവിടാര് ഭരിച്ചാലും അങ്ങനത്തന്നെ ചെയ്യാറുള്ളത് കാര്യമായിട്ട് ജനങ്ങൾക്ക് വിദേശികൾക്ക് വരുമ്പോള് അവർക്ക് നല്ല ഹോട്ടല് നല്ല താമസ സൗകര്യം ഇതൊക്കെ എപ്പോഴും നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ ഇവിടെ ഉണ്ടാക്കണം അതുപോലെ അവർക്ക് ട്രാവല് ചെയ്യാനുള്ള ഒരു പേടിയില്ലാതെ ട്രാവല് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടുണ്ടാക്കണം അപ്പോള് തന്നെ പുറത്തുള്ള ആളുകള് ഇങ്ങോട്ട് വന്നുകണ്ട് കാണാൻ പല സ്ഥലങ്ങളും കാണാൻ ധൈര്യപ്പെടുകയുള്ളൂ അത് മാത്രമല്ല ഇവിടെ കാണാനുള്ള പല സ്ഥലങ്ങളിലോട്ട് ഒരു വൃത്തിയില്ലാതെയാണ് പല സ്ഥലങ്ങൾ ഇപ്പോള് ഉള്ളത് ആളുകളവിടെ വേസ്റ്റുണ്ട് കൊണ്ടോയിട്ടോണ്ട് തന്നെ നമ്മള് ഫസ്റ്റ് ഫസ്റ്റവിടെ പോകുന്നത് അവർക്ക് നല്ലൊരു അനുഭൂതി അനുഭവപ്പെടാം പിന്നെയുള്ളവര് പോവുമ്പോള് അവിടാകെ ചീഞ്ഞ് നാറി മുഷിഞ്ഞ് കിടക്കുകയാണ് ഞമ്മളെ നാട്ടില്ത്തന്നെ പല ടൂറിസ്റ്റ് പ്ലേസും അങ്ങനെയാണ് കിടപ്പുള്ളത് അതേ ഗവൺമെൻറ്റ് അതിന് നല്ല രീതിയില് മുൻകൈയെടുത്ത് വേണ്ട വിധം കാര്യങ്ങൾ ചെയ്യണം